ഒരു ദിവസം ഞങ്ങളാണെങ്കിൽ ട്രക്കിങ്ങിന് പോയ വഴിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ക്ക് നേരിട്ട ഒരു അനുഭവമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കാരണം ട്രക്കിങ്ങിന് പോയ സമയത്ത് ഞങ്ങൾ നാല് പേരായിരുന്നു അതിൽ ഒരാൾ ആയ എൻ്റെ പ്രിയ സുഹൃത്തിനെ ഒരു കരടി ആക്രമിക്കുകയും ആ ആക്രമണത്തെ അദ്ദേഹം മരിച്ചു പോകുകയും ചെയ്തു അതിനെ കുറിച്ചാണ് അപ്പം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഞങ്ങളെക്കാൾ ഇത്തിരി പിമ്പിലായിരുന്നു വന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഒച്ച കേട്ട അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തെ ഒരു കരടി വന്നു ആക്രമിക്കുന്നത് ആക്രമണത്തെ അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പം അദ്ദേഹത്തിന് കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അതിലുണ്ടായത് അപ്പം ട്രക്കിങ്ങിനൊക്കെ നമ്മൾ പോവുമ്പോൾ നമ്മൾ പരമാവധി സൂക്ഷിക്കുക അപ്പം ഞങ്ങൾക്ക് ഈ അനുഭവപ്പെട്ടത് വളരെ അധികം ബുദ്ധിമുട്ടോടു കൂടിയ കാര്യമാണെന്ന് ഞങ്ങളുടെ ഒരു പ്രിയ കൂട്ടുകാരനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നതുമാണ് അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നമ്മളായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക